നമുക്ക് ലോകത്ത് അല്ലെങ്കില് എന്റെ എനിക്ക് ഇപ്പോൾ ലോകത്ത് എവിടെ വേണമെങ്കിലും പോകാമെന്നുള്ളൊരു അവസരം കിട്ടിയാൽ ഞാനാദ്യം ചെയ്യാൻ അല്ലെങ്കില് പോകാന് ആഗ്രഹിക്കുന്നത് നമ്മുടെ ഭാരതം അല്ലെങ്കില് ഇന്ത്യ ഒന്നു മൊത്തത്തില് സഞ്ചരിക്കാനുള്ളൊരു ഇതാണ് ഞാൻ നോക്കുക എന്താ വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യ കണ്ടു കഴിയുമ്പോൾ തന്നെ പാതി ലോകം കണ്ടതുപോലെയാണ് ഇന്ത്യയിലെ അത്രയും അധികം സംസ്കാരങ്ങളും ജീവിത രീതികളും സ്ഥലങ്ങളും എല്ലാം നമുക്ക് കാണാനുണ്ട് ഒട്ടനവധി പുഴകൾ അതുപോലെ എന്താ പറയുക കാട് വനം പുഴ പിന്നെ ആള്ക്കാരുടെ ജീവിത രീതി അവർ അവരുടെ സംസ്കാരങ്ങൾ ഇങ്ങനെ പലതും നമുക്ക് നമ്മുടെ ഈ ഇന്ത്യ രാജ്യത്തു തന്നെ കണ്ടു പഠിക്കാനുണ്ട് അതു കണ്ടു പഠിക്കാന് തന്നെ നമുക്ക് ഏകദേശം കുറേ സ അതായത് എത്ര സമയം എടുക്കുമെന്നൊന്നും പറയാന് പറ്റില്ല നമ്മുടെ ഇരുപത്തി എട്ട് സംസ്ഥാനം അതുപോലെ പിന്നെ നമ്മുടെ കേന്ദ്രഭരണപ്രദേശങ്ങള് ഇതെല്ലാം കൂടി കണ്ടു വരുമ്പോഴേക്കും തന്നെ നമുക്കൊരു രണ്ട് മൂന്ന് നാല് കൊല്ലത്തിനടുത്ത് സമയം വരും

ജസ്റ്റ് പോയി കണ്ടിട്ടു വരാം എന്നുള്ളതിനു പകരം അവിടെ പോയി രണ്ടു ദിവസം താമസിച്ച് അവരുടെ കാര്യങ്ങളൊക്കെ പഠിച്ച് ഇപ്പം നമ്മുടെ കേരളത്തില് തന്നെ നോക്കുകയാണ് പറയുമ്പോൾ ഓരോ ജില്ലയും വ്യത്യസ്ഥമായ സംസ്കാര രീതിയും ഭക്ഷണ രീതിയും എന്താണ് ജീവിതശൈലിയൊക്കെ ഓരോ സന സം സംസ് ഓരോ ജില്ലയ്ക്കും അതായത് നമുക്ക് പതിനാല് ജില്ലയാണ് അപ്പം പതിനാല് ജില്ല ഇപ്പം തിരുവനന്തപുരത്ത് ഒന്ന് കൊല്ലം പത്തനംതിട്ട കോഴിക്കോട് കാസർഗോട് കണ്ണൂർ പാലക്കാട് മലപ്പുറം അങ്ങനെ വയനാട് ഓരോ ജില്ലയിലേക്കും ഓരോ രീതിയിലുളള ഭക്ഷണരീതി ഓരോ ജില്ലയിലുള്ള വസ്ത്രധാരണം ഓരോ രീതിയിലുള്ള ഭാഷ ഇതൊക്കെ മനസ്സിലാക്കി വരുമ്പോൾ തന്നെ ഒരുപാടു സമയം എടുക്കും അപ്പം അതുകൊണ്ടു നമുക്ക് അവിടെ പോയി ഒരു രണ്ടു ദിവസം താമസിച്ച് അവിടുത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പാലക്കാട് ജില്ലയില് തന്നെ നോക്കുവാണെന്നു പറയുമ്പോൾ മണ്ണാര്ക്കാട് ഒരു സ്ഥലം അതുപോലെ പാലക്കാട് ജില്ലയിലെ മറ്റു സെന്റർ പിന്നെ ഒറ്റപ്പാലം വേറെ നമ്മുടെ അട്ടപ്പാടി അങ്ങനെ അങ്ങനെ വിവിധമായിട്ടുള്ള ഒരു വൈവിധ്യമാര്ന്നൊരു പ്രദേശമാണ് നമ്മുടെ കേരളമായാലും ഇന്ത്യയായാലും അപ്പം അത് മുഴുവന് നമ്മൾ കണ്ട് അത് മനസ്സിലാക്കി ഒന്ന് അതിനോട് ഇണങ്ങി ചേര്ന്ന് ആ ഒരു സമയം കിട്ടുമ്പോഴായിരിക്കും നമുക്ക് എന്തു മിനിമം ഒരു നാലോ അഞ്ചോ വര്ഷം ഞാനിപ്പൊ കേരളത്തിന്റെ ഉദാഹരണം പറഞ്ഞു ഇതേ പോലെ തമിഴ്നാട് കര്ണ്ണാടക ആന്ധ്ര തെലങ്കാന യൂ പി ഗോവ പിന്നെന്താണ് ഇങ്ങനെ മധ്യപ്രദേശ് തേ ഉയു ഉ ഉത്തര്പ്രദേശ് ഉത്തരാഖണ്ഡും മറ്റ് ജമ്മുകാഷ്മീർ ഡല്ഹി അങ്ങനെ നമ്മൾ ഓരോ സ്ഥലങ്ങളും വ്യത്യസ്ഥമായിട്ടുള്ള രീതിയിലുള്ള ഭാഷ അതുപോലെ അവരുടെ ജീവിത രീതികൾ അവരുടെ എന്താ പറയുക വരുമാന മാര്ഗ്ഗങ്ങള് ഇപ്പൊ അവരുടെ ജോലി അങ്ങനെ നമ്മൾ ഓരോ ജില്ലയിലെയും ഓരോ സംസ്ഥാനങ്ങളിലും പോകുമ്പോൾ ഓരോ വ്യത്യസ്ഥമായ രീതിയിലുള്ള മനോഹരമായിട്ടുള്ള പല പല കാര്യങ്ങള് നമുക്കു കാണാന് പറ്റും അപ്പൊ അതൊക്കെ കണ്ടു മനസ്സിലാക്കി വരുമ്പോഴേക്കും നമുക്ക് എന്താ പറയുക കോ കുറച്ചൊന്നുമല്ല മിനിമം ഞാനൊരു എന്താ പറയുക ഒരു രണ്ടു ദിവസം വെച്ചു ഒരു സ്ഥലത്ത് നിൽക്കുവാണെങ്കിൽ തന്നെ ഏകദേശം രണ്ട് മൂന്ന് മൂന്ന് നാല് കൊല്ലത്തിനു മേലെ എടുക്കും അപ്പൊ അത്രയും വൈവിധ്യമാര്ന്ന അത്രയും മനോഹരമായൊരു രാജ്യമാണ് നമ്മുടെ ഭാരതം അവിടെ കാണാനും ചിലവഴിക്കാനും കിട്ടിയാല് അങ്ങനെ ഉള്ളൊരു അവസരം ലഭിക്കാനാണ് അതായത് മൊത്തം ഇതിനു അതിന്റേതായ സമ്പത്തിക ചിലവ് വരുമല്ലോ അപ്പം അങ്ങനെയൊരു അവസരം കിട്ടുകയാണെങ്കിൽ ഞാന് പറയുന്നത് എന്റെ മനസ്സിൽ തോന്നുന്നത് നമ്മുടെ ഭാരതം മുഴുവന് അങ്ങു കാശ്മീർ മുതൽ ഇങ്ങ് കന്യാകുമാരി വരെ മൊത്തം ഒന്നു ചുറ്റി കാണണം എന്നുള്ള ഒരു ആഗ്രഹം